എനിക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടമുള്ള രണ്ട് ഗെയിംസാണ് രണ്ടല്ല മൂന്ന് ഗെയിംസാണ് ഒന്ന് ഫുട്ബോളും ഒന്ന് ക്രിക്കറ്റും ഒന്ന് ഷട്ടിൽ ബാറ്റുമാണ് ഞാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ആദ്യം പണ്ടൊക്കെ വയലിലൊക്കെ പോയി വരമ്പത്തുകൂടി ചളിയിൽക്കൂടിയൊക്കെ ഫുട്ബോൾ കളിച്ചതാണ് എനിക്ക് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളിക്കാരനാണ് മെസ്സിയാണ് മെസ്സിയെ ഒരു ദൈവത്തെപ്പോലെയാണ് നല്ല കളിക്കാരനാണ് മെസ്സി അതേപോലെത്തന്നെ ഞാൻ പണ്ട് എൻ്റെ ചേച്ചീൻ്റെ കെട്ടിയവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽപ്പോയപ്പോൾ ചേച്ചീൻ്റെ കെട്ടിയവൻ്റെ വീട്ടിൽപ്പോയപ്പോൾ അവിടെനിന്ന് കുറേ കുട്ടികളുമായിട്ട് ഷട്ടിൽ ബാറ്റ് കളിച്ചു അങ്ങനെ കുറേ ഗെയിം കളിച്ചു ഷട്ടിൽ ബാറ്റ് കളിച്ചു ക്രിക്കറ്റ് കളിച്ചൂ ക്രിക്കറ്റ് എന്നൊക്കെ കളിച്ച് നല്ല ഗെയിം ആയിരുന്നു ക്രിക്കറ്റൊക്കെ കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂട്ടുകാരും എല്ലാവരോടുംകൂടി കളിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ക്രിക്കറ്റ് അതേപോലെത്തന്നെ ഫുട്ബോൾ കളിക്കാൻ വമ്പൻ ഇഷ്ടമാണ് നമ്മൾ പാസ്സ് ചെയ്തു ഓരോ കൂട്ടുകാരന്മാർക്കും വിശ്വാസത്തോടെ ഇങ്ങോട്ടു തരുമ്പോഴൊക്കെ കളിക്കാൻ ഒരു മനഃസുഖമുണ്ട് അങ്ങനെയാണ് ക്രിക്കറ്റും ഫുട്ബോളും ഷട്ടിൽ ബാറ്റും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗെയിം